ഞങ്ങളുടെ ഗ്രാമമെന്ന് പറയുന്നത് പുഴകളും തോടുകളും നിറഞ്ഞ ഒരു ഗ്രാമമാണ് അവിടെ ആ ആ പുഴയിൽ തോടുകളിൽ ഒക്കെ വർഷം മുഴുവനും ഒരിക്കലും വറ്റാത്ത ഒരു പുഴയാണ് അത് ഇതുവരെയും ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതൽ ഇങ്ങോട്ട് ആ നല്ല പോലെ നീരൊഴുക്കുള്ള ഒരു പുഴയായിട്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധജലം സ്രോതസെന്ന് പറയുന്നത് ഗവണ്മെൻ്റിൻ്റെ വാട്ടർ സപ്ലൈ ആണ് പിന്നെ അതുകൂടാതെ വീടുകളിൽ അവരവരുടെ ചിലവിൽ ബോർ വെൽ കുഴിച്ച് അവിടെ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ ബോർ വെൽ വെള്ളമെന്ന് പറയുന്നത് വർഷം മുഴുവൻ നമുക്ക് ലഭിക്കുന്നുണ്ട് വേനൽ കാലത്തു പോലും ആ ബോർ വെല്ലിൽ നിന്നുള്ള വെള്ളം നമുക്ക് കുറയുന്നില്ല പിന്നെ വന്നിട്ട് ഈ ഗവണ്മെൻ്റിൻ്റെ ഗവണ്മെൻ്റിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് അതും ഇതുവരെ മുടക്കം കൂടാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജല സ്രോതസുകളാണ്